അങ്ങനെ പ്രത്യേകിച്ച് തന്ത്രങ്ങളൊന്നൂല്ല കൃത്യമായി സമാധാനത്തോടെ സമയെടുത്ത് ഭക്ഷണമുണ്ടാക്കിയാൽ മതി പിന്നെ പലരും അങ്ങനെ ധൃതി പിടിച്ചിട്ടക്കെ ഭക്ഷണമുണ്ടാകും അതിൻറ്റൊന്നൊരാവശ്യവുമില്ല സമയമെടുത്ത് ടൈമെടുത്ത് പതുക്കെ കുക്ക് ചെയ്താൽ മതി പിന്നെ ഉപ്പ് മസാലപ്പൊടി പഞ്ചസാര മസ് മുളക് പൊടി മഞ്ഞൾ പ്പൊടി മല്ലിപ്പൊടി എന്നീ പൊടികളക്ക കൃത്യ ടൈമിൽ കൃത്യ സമയത്ത് ആവശ്യത്തിന് ഇടുക നമ്മളിങ്ങനെ കുറെ കുറെ പൊടികളിട്ടാലും കുറെ അങ്ങനെട്ടാലും സ്വാദുണ്ടാവൂന്ന് വിചാരിക്കും ഇല്ല നമ്മളെല്ലാം കറക്റ്റ് അളവിനിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളു പിന്നെ അത് നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ടോന്നറിയണം നല്ല രീതിലത് എണ്ണയിലിട്ട് ഇങ്ങനെ വഴറ്റി വഴറ്റി അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ നമ്മൾ വഴറ്റീട്ട് നമ്മൾ ടൈമെടുത്തിട്ട് വേണം ഇതൊക്കെ കുക്ക് ചെയ്തുണ്ടാക്കാൻ പിന്നെ നല്ല സന്തോഷത്തോടുള്ളൊരു മനസ്സിൽ വേണം കുക്ക് ചെയ്യാൻ എന്നാലെ നമ്മുടെ ഭക്ഷണങ്ങൾക്കും ടേസ്റ്റൊണ്ടാവുള്ളു പിന്നെ നല്ല രീതിയിൽ ഭക്ഷണം കുക്കായി നല്ല പച്ച സ്മെല്ല് മാറിയോന്ന് നല്ല രീതീ നോക്കണം പിന്നെ ഈ മല്ലിച്ചപ്പ് സാധനങ്ങളൊക്കെ ഇല എന്നീ ഇലകളൊക്ക കറിവേപ്പില മല്ലിച്ചപ്പ് ഇലകളക്കെ ഇട്ടാൽ നല്ല ഫ്ളേവറ് കിട്ടും നല്ല സ്മെല്ലും നല്ലൊരു വ്യത്യസ്ത ടേസ്റ്റും കിട്ടും കറികൾക്ക് പിന്നെ എല്ലാ കറികൾലും ഈ മധുര പലഹാരങ്ങളൊക്കെയുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ കുറച്ച് ഉപ്പിടണം നമ്മൾ മധുരം കണ്ട്രോൽ ചെയ്യാൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് ഉപ്പിടുന്നത് അപ്പമൊരു പ്രത്യേക ടേസ്റ്റുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാതും കൃത്യമായിട്ട് നോക്കണം പിന്നെ എല്ലാത്തിനും ഒരു ചിട്ട വേണം എന്തക്കെ എപ്പം ചെയ്യണം എന്നൊരു ഇത് സംഭവങ്ങൾക്കൊരു ചിട്ട വേണം എല്ലാം കൃത്യമായിട്ട് ഒരുക്കി വെക്കണം എല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാൻ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ആ എന്നാൽ കുക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് കുക്ക് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു നല്ലത് നമ്മൾ എല്ലാം ടൈമെടുത്ത് നമ്മെല്ലാം ആലോചിച്ച് നമ്മെല്ലാം സ്വന്തം ഭയങ്കര സന്തോഷത്തോടെയുള്ള മനസ്സിലൂടെ കുക്ക് ചെയ്യുമ്പോൾ നല്ല സ്വാദുണ്ടാവും പിന്നെ ബേക്ക് ചെയ്യില്ലേ നമ്മൾ ഈ കേക്ക് സാധനങ്ങളൊക്ക നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അവിടെ കൃത്യമായ അളവ് അളവ് ഉപയോഗിക്കണം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് അളവ് ഉപയോഗിച്ചില്ലെങ്കിൽ കേക്ക് മൊത്തത്തിൽ കൊളമാവും എപ്പളും തെറ്റിപ്പോവും എനിക്ക് കുറെ തവണ അനുഭവൊണ്ടായിട്ടുണ്ട് കേക്ക് പോലുള്ള സാധനങ്ങൾക്ക് കൃത്യമായ അളവുണ്ടാക്കണം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണേ നമുക്ക് ഇത്തിരി രണ്ട് മൂന്ന് സ്പൂണ് മാറിപ്പോയാലൊക്ക നമുക്ക് എങ്ങനേലൊക്ക റെഡിയാക്കാം പക്ഷേ കേക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ പറ്റില്ല കൃത്യമായ അളവ് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല പ്രശ്നാവും ടേസ്റ്റ് തന്നെ മാറി പോവും ചിലപ്പോൾ നമ്മളാ ഉപയോഗിക്കുന്ന പത്രമൊക്കെ കരിഞ്ഞ് പോവൊക്കെ ചെയ്യും പിന്നെ നല്ല ശ്രദ്ധ വേണം കുക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോക്കെ മാറിപ്പോയാൽ നമ്മുടെ കറി ഒക്ക കൊളമായിപ്പോവും അപ്പം നല്ല ശ്രദ്ധയോടെ സമയമെടുത്തിട്ട് നല്ല ഇഷ്ടത്തോടെ കുക്ക് ചെയ്യുക പിന്നെ പല ആൾക്കാരും ചെയ്യുന്നൊരു മണ്ടത്തരമാണ് ഈ ഭക്ഷണമൊക്കെ വെക്കുമ്പോൾ ഉപ്പൊക്കെ കൂടിപ്പോയാൽ കുറെ വെള്ളമൊഴിക്കുക അങ്ങനത്തെ കുറെ പരിപാടി ഉപ്പൊക്കെ കൂടിപ്പോയാൽ എന്താ ചെയ്യേണ്ടെന്നെച്ചാൽ ഉരുളൻ കിഴങ്ങൊക്കെ മുറിച്ചിട്ടാൽ മതി അപ്പോൾ ഉരുളൻ കിഴങ്ങ് ഉപ്പൊക്കെ വലിച്ചെടുത്ത് എങ്ങനേങ്കിലൊക്ക എന്നിട്ട് നമ്മളാ ഉരുളൻ കിഴങ്ങ് മാറ്റി വെക്കൊക്കെ ചെയ്യും പിന്നെ ആൾക്കാരിങ്ങനെ ധൃതി പിടിച്ചുണ്ടാക്കുമ്പോൾ അറിയാത്ത ആൾക്കാർ കുക്ക് ചെയ്യരുത് പഠിച്ച ശേഷമേ കുക്ക് ചെയ്യാൻ പാടുള്ളു അപ്പം നല്ല ടൈമെടുത്ത് ഭയങ്കര സന്തോഷത്തോടെ കുക്ക് ചെയ്യുക അതാണ് കുക്കിങ്ങ് നല്ല ടേസ്റ്റാവാനുള്ളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്